എൻ്റെ മതം എന്ന് പറഞ്ഞാൽ ഹിന്ദു മതമാണ് ഹിന്ദു മതത്തെ കുറിച്ച് പറയുവാണെങ്കിൽ നമ്മുടെ പണ്ട് മുതലേ ഉള്ള ഒരു മതമാണ് ഹിന്ദു മതം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഹിന്ദു ഹിന്ദുക്കളെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കൂടുതലായിട്ടും ദൈവിക വിചാരങ്ങളക്കെ ആയിട്ട് നടക്കുന്ന ആൾക്കാരാണ് അപ്പം കൂടുതലായിട്ടും നമ്മൾ അമ്പലങ്ങളിലും അങ്ങനത്തെ കുറേ ആൾക്കാരൊക്കെയാണ് അപ്പം പണ്ടെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കുറേ യുദ്ധങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഹിന്ദുക്കൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധങ്ങൾ ഹിന്ദുക്കളിൽ താഴ്ന്ന ജാതി അങ്ങനത്തെ കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ കുറിച്യന്മാർ അങ്ങനെ കുറേ ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ വലിയ വലിയ നമ്പൂതിരിമാർ അങ്ങനെയുള്ള അവരൊക്കെയായിരുന്നു വലിയ വലിയ ആൾക്കാർ അപ്പം അവർക്കെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ തീണ്ടി കൂടായ്മ അങ്ങനത്തെ പല പല ആചാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം പിന്നെ അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ല മെയിൻ ആയിട്ട് അങ്ങനത്തെ ആചാരങ്ങളാണ് കൂടുതലായിട്ട് ഉണ്ടായിരുന്നത് പിന്നെ ചരിത്ര പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ കൂടുതലായിട്ടും ഈ സതി പോലെ ഉള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അതായത് ഭർത്താവ് മരിച്ച് കഴിഞ്ഞാൽ ആ ചിതയിൽ ചാടിയിട്ട് ഭാര്യയും മരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പണ്ടത്തെ കാലത്തുള്ള സതി കാര്യങ്ങളൊക്കെ ഒരു ചരിത്ര പ്രധാനമായിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ ആയിരുന്നു അത് ഇപ്പം നമുക്ക് ബുക്കുകളിലും കാര്യങ്ങളിലൊക്കെ വായിക്കാൻ പറ്റുള്ളൂ പിന്നെ ഉള്ളത് സംസ്കാരണ സംസ്കാര സം സംരക്ഷണത്തിനൊക്കെ ആയിട്ട് വേണ്ടിയിട്ട് പല സം സംഘർഷങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ സംസ്കാരം നിലനിറത്താൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളൊക്കെ സംഘർഷം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് ഇപ്പോഴും നിലനിന്ന് പോകുന്നുണ്ട്